പാട്ട് എന്നുപറയുന്നത് ഒരു കലയാണ് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പറയുക നമ്മളെ ഓരോ ഓരോ പിള്ളേർ പാടുമ്പോഴും അവർ എത്തിപ്പെടുന്നത് ഭയങ്കര വളരെ വലിയ ഉയരത്തിലാണ് എന്താണ് പറയുക ഓരോ എന്താണ് പറയുക വായു നിയന്ത്രണത്തിന് പ്രാധാന്യം എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഇതാണ് നല്ല പ്രാധാന്യം ഉണ്ടതിന് പക്ഷേ അത് പാട്ടിന് എന്താണ് പറയുക പാട്ട് എന്ന് പറയുന്നത് ഒരു കലയായതുകൊണ്ട് തന്നെ ചെറിയ പിള്ളേർ വരെ ഇപ്പോൾ പാടി പാടി വലിയ വലിയ വേദികളിലാണ് ഇപ്പോൾ കയറികൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പാട്ടിനിപ്പം നമ്മുടെ ലോകത്തിലുള്ള എല്ലാവരും നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഒന്ന് പാടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയാൽ പിന്നെ ആ പിള്ളേരൊക്കെ ഇരുന്നു ഭയങ്കര ഹൈ ലെവെലിലോട്ടാണ് വലിയ വലിയ സ്റ്റേജിലോട്ടാണ് അവർ പോകുന്നത് അതുപോലെ തന്നെ അവർക്ക് അതിനുള്ള വരുമാനം സമ്പാദിക്കാനും പിന്നെ എല്ലാവരും അറിയപ്പെടുന്നൊരു നല്ല പാ ലോകം അറിയപ്പെടുന്നൊരു പാട്ടുകാരനാകാനും അവർക്ക് സാധിക്കുന്നുണ്ടെന്നതാണ് ഇതുപോലെത്തന്നെ ഈ വായു നിയന്ത്രണത്തിൻ്റെ പ്രാധാന്യം അതുപോലെത്തന്നെയാണ് ഏകദേശം ഇതൊക്കെ നമുക്ക് നല്ലവണ്ണം ഇതിൽ ഇതിൽ കൂടുതൽ നമുക്കിനി മെച്ചപ്പെടുത്താൻ പറ്റും പക്ഷേ പാട്ടിൻ്റെ പ്രധാന്യം എന്നൊക്കെ പറയുന്നത് ഭയങ്കര അങ്ങേ അറ്റം തന്നെയാണ് എല്ലാവരും എല്ലാ ചെറിയ പിള്ളേർ തൊട്ട് അങ്ങ് വരെയുള്ളവർ തന്നെ കയറി കയറി പോകുന്നത് ഈ പാട്ടിലൂടെ തന്നെയാണ് അത്ര പ്രാധാന്യം ഉണ്ട് നമ്മുടെ പാട്ടിനെന്ന് പറയുന്നത്